വിദ്യാഭ്യാസം നൽകുന്ന സാമ്പത്തിക സഹായങ്ങളെന്നു വെച്ചാൽ കോളേജുകളിൽ നിന്നുള്ള എന്താ സ്കൂളുകളിലും നിന്നുള്ള ഒരു ക്ലബുകളില്ലെ എൻ എസ് എസ് എൻ സി സി അങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ ചെറുതായിട്ട് പൈസയൊക്കെ പിരിച്ച് പിന്നെ ഗവൺമെൻറ്റാനുകൂല്യം കൊടുത്ത് അങ്ങനെ എന്താ അങ്ങനെ ഒത്തിരി ഒത്തിരി കൂട്ടായ്മകളൊക്കെ കൂടിക്കൂടി അങ്ങനെ ഒന്നും ഇല്ലാത്ത വീട്ടിലെ പാവപ്പെട്ട കുട്ടികളെ അങ്ങനെയൊക്കെ സഹായിക്കാം പിന്നെന്താ ഒരാൾ ആരെങ്കിലൊക്കെ ചേർന്ന് സ്പോൺസർ ചെയ്യാം അങ്ങനെയൊക്കെ വിദ്യാഭ്യാസം എന്ന ഒന്നും പാവപ്പെട്ട ആൾക്കാർക്ക് പഠിക്കാൻ എന്താ പഠിക്കാൻ പറ്റാത്തതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാമെന്നുള്ള മൈൻഡിലൊക്കെയാണ്